ചേട്ടാ നമസ്ക്കാരം എൻ്റെ പേര് രാജേശ്ന്നാണെയ് ഞാൻ കഴിഞ്ഞാഴ്ച്ച അവിടന്ന് രണ്ട് ബിരിയാണി പിന്നേ മറ്റേ നമ്മടെ മസാല ഐറ്റം വേടിച്ചിട്ട്ണ്ടായിരുന്നു പിന്നെ അത്പോലുള്ള എന്താണ് നമ്മടെ സ്പെഷ്യൽ ചിക്കൻ കറിയില്ലേ ദമ്മൽ ചിക്കൻ കറീ കൊണ്ടാ സംഭവം നിങ്ങളുടെ ഫെയ്മസായിട്ടുള്ള സാധനം അത് ഓർഡെറെയ്തിട്ടുണ്ടായിരുന്നു ആ ഓർഡെറൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം ആ സംഭവം വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി നിങ്ങടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം ആ ഓർഡെറൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞാന് റൈറ്റൊന്നും മാറീട്ടില്ലോലേ ഞാൻ ആ നമ്പറിലേക്കന്നെ ജീപേയ് ചെയ്ത് തരാം വൈകുനേരം ഒരൂ ആറ് മണിക്ക് ഏഴ് മണിക്കൊ വീട്ടിലെത്തിച്ചാൽ മതി ഓക്കേ